ഞാൻ കൂടുതല് മലയാളം ന്യൂസുകളാണ് കാണാറുള്ളത് കാരണം ഞാൻ എൻ്റെ വീട്ടില് കൂടുതലും മലയാളം ന്യൂസുകളാണ് വെക്കാറുള്ളത് എൻ്റെ അടുത്ത് ഞങ്ങളുടെ പ്രാദേശികമായ ഒരു ചാനലുണ്ട് കെ എസ് ഇ വി പറയുന്നത് കുട്ടനാട് കേബിൾ വിഷൻ ഒമ്പത് മണിക്കാണ് അതിൻ്റെ ന്യൂസ്ല് ന്യൂസ് ഉണ്ടാകാറുള്ളത് ബാക്കി ഉള്ള സമയങ്ങളിൽ എല്ലാം എൻ്റർടൈൻമെന്റ് മറ്റ് പരിപാടികളാണ് നടക്കാറുള്ളത് ഒമ്പത് മണിക്ക് കെ എസ് ഇ വി യിലെ ന്യൂസ് ഞാൻ കാണാറുണ്ട് അത് മാത്രമല്ലാതെ മലയാളത്തിൽ ഉള്ള മറ്റ് ന്യൂസ് ചാനൽ മനോരമ കേരള മനോരമ കൈരളി ജനം ടി വി പിന്നെ ട്വന്റി ഫോർ അങ്ങനെ ഉള്ള മിക്ക ന്യൂസ് ചാനലുകളും ഞാൻ കാണാറുണ്ട് ദിവസവും ഏതെങ്കിലും ഒരു ചാനല് കണ്ടിട്ട് അന്നത്തെ പ്രധാന ന്യൂസുകളെന്താണെന്ന് ഞാൻ മനസ്സിലാക്കാറുണ്ട് കൂടുതലും ഞാൻ വാർത്ത കാണുകയാണ് ചെയ്യുന്നത് വായിക്കുന്നതിൽ ഉപരി കാരണം പെട്ടെന്ന് മനസിലാക്കുകയും പെട്ടെന്ന് ന്യൂസ് കിട്ടാനും ഏറ്റവും എളുപ്പമാർഗം കാണുന്നത് ആയിരുന്ന ആയതുകൊണ്ട് ഞാൻ കൂടുതലും ന്യൂസ് ഹെഡിങ്സ് കാണുകയാണ് ചെയ്യാറുള്ളത് പിന്നെ ചാനൽ ചർച്ചകളും ഞാൻ ഇരുന്നു കാണാറുണ്ട്